ആ പറയൂ ആ ഓക്കെ നിങ്ങള് മുമ്പ് എവിടെ എങ്കിലും മറ്റെ ഇതുപോലെ ലൈബ്രറിയിലെ ഇത് മെമ്പർഷിപ്പ് എടുക്കുക എന്തെങ്കിലും ചെയ്തിട്ട് ഉണ്ടോ ആദ്യം ആയിട്ട് ആണല്ലെ ആ ഓക്കെ എവിടെ ആണ് വീട് നമ്മുടെ ഈ പഞ്ചായത്ത് തന്നെ ആണോ ആ ഓക്കെ അത് നമ്മുടെ പഞ്ചായത്ത് ഒരു ഇത് തന്നെ അല്ലെ വരുന്നത്

ആ ഓക്കെ ഇപ്പം എന്താ ചെയ്യുന്നത് പഠിക്കുവാണോ വർക്ക് ആണോ എങ്ങനെയാണ് എന്താണ് പരിപാടി ആ ഓക്കെ നമുക്ക് ഇപ്പം പ്രീമിയം ക്ലാസ്സ് മെമ്പറിൽ ആണ് വരിക അപ്പം പഠിക്കുന്നവർക്ക് ആണെങ്കിൽ മെമ്പർഷിപ്പ് ഫ്രീ ആണ് വർക്ക് ചെയ്യുന്നവർക്ക് മെമ്പർഷിപ്പിന് ചെറിയ ഒര് എമൗണ്ട് നമ്മള് ഈടാക്കുന്നുണ്ട് പഠിക്കുന്നവർക്ക് പൈസ മേടിക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞിട്ട് അപ്പോൾ പ്രീമിയം ക്ലാസ്സ് മെമ്പർഷിപ്പ് അതായത് ജോലിക്ക് പോവുന്ന ആൾക്കാരിൽ നിന്ന് ചെറിയ ഒര് എമൗണ്ട് വെച്ച് നമ്മള് ഈടാക്കുന്നുണ്ട് നമ്മുടെ ഈ വാർഷിക മറ്റെ അങ്ങനത്തെ പരിപാടികൾക്ക് ഒക്കെ ആ അല്ലല്ല വർഷത്തില് ഒരു പ്രാവശ്യം ഇയർലി ഒര് എമൗണ്ട്

ഇല്ല ചേരുമ്പം കെട്ടി വയ്ക്കുക ഒന്നും വേണ്ട നിങ്ങള് ബുക്ക് അതായത് നമ്മള് മറ്റെ ഈ വാർഷികമായിട്ടുള്ള പ്രീമിയം ക്ലാസ്സിൽ നിന്ന് ഒര് എമൗണ്ട് മേടിക്കും അതിന് പുറമെ നമ്മള് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ ഉണ്ടാവും ലേറ്റ് അഡ്മിഷൻസ് ഫൈൻ ഉണ്ടാവും പിന്നെ ആ അഥവാ ബുക്ക് മിസ്സ് ആകുവോ അതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയോ ചെയ്താൽ ബുക്കിൻ്റെ എമൗണ്ട് അടയ്ക്കണം അല്ലെങ്കിൽ ആ ബുക്ക് റീപ്ലേസ് ചെയ്ത് തരാൻ വിളിക്കും പുതിയ ബുക്ക് ഈ എമൗണ്ട് ഇല്ല അത് നമ്മള് വാർഷികമായിട്ട് ഒരു ഫിക്സഡ് ആയിട്ട് ഉള്ള എമൗണ്ട് ആണ് അത് തിരിച്ച് തരാൻ പറ്റില്ല നിങ്ങൾ അത് എല്ലാ കൊല്ലവും അടയ്ക്കണം പക്ഷെ അങ്ങനെ ആണ് അതിൻ്റെ നിർത്തണമെങ്കിൽ അയക്കണ്ട ആ അതെ ആ വർഷത്തില് അപ്പം വലിയ എമൗണ്ട് ഒന്നും അല്ല ഇയർലി ഒര് മൂന്നൂറ്റമ്പത് രൂപ ആണ് നമ്മള് പേയ്മെൻറ്റ് ആയിട്ട് അതിൻ്റ ഇതാക്കുന്നത്

നമ്മള് രാവില എട്ട് ടു വൈകുന്നേരം എട്ട് ആണ് നമ്മുടെ ടൈമിംഗ് അതിൽ ഇപ്പം എക്സ്ട്രാ ഇപ്പം കുറച്ച് ബി എസ് സി സ്റ്റുഡൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പം അപ്പം അവർക്ക് വേണ്ടീട്ട് വൈന്നേരം ഒര് പത്ത് പത്തര പതിനൊന്ന് മണി വരെ ഒക്കെ നമ്മള് ഇരിക്കും ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സെറ്റപ്പിന് വേണ്ടിയിട്ട് അപ്പം ഒരു പതിനൊന്ന് മണി വരെ ഒക്കെ ഇരിക്കും രാത്രി അതെ അതെ നിങ്ങൾ ഇപ്പം വായിക്കാത്ത ബുക്കുകൾ ആണെങ്കിലും മറ്റെ ബയോഗ്രഫി പോലത്തെ ആണെങ്കിലും അങ്ങനത്തെ അത്ര അല്ല പ്ലസ് ടു ബേസിൻ്റ അങ്ങനെ എല്ലാ ബുക്കുകൾ ഉണ്ട് ഇപ്പം റീഡിംഗിന് പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പി എസ് സി ക്ക് അത്യാവശ്യം ഗൈഡും കാര്യങ്ങൾ ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ എസ്എസ്സിക്ക് ഉള്ള എക്സാമിനും പ്രിപ്പേറ് ചെയ്യാൻ ഉള്ള ബുക്കുകള് നമ്മള് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഇപ്പം ഏത് ടൈപ്പ് ബുക്ക് ആണ് നോക്കുന്നത് ആ ഇണ്ട് ഇണ്ട് ഇണ്ട് ഉണ്ട് നോവൽ ഉണ്ട് ആ അത് ഒക്കെ ഉണ്ട് അത് ഒക്കെ ഉണ്ട് ആ മനസ്സിലായി മനസ്സിലായി ആ നമ്മൾക്ക് നോവലിന് അത്യാവശ്യം ആ നോവലിന് അത്യാവശ്യം ബുക്കുകളും കാര്യങ്ങൾ ഒക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ നോവൽ സെക്ഷനില് വന്നിട്ട് ഇപ്പം ഇംഗ്ലീഷ് നോവൽസ് ഉണ്ട് മലയാളം മലയാളം നോവൽസ് ഉണ്ട്

ആ ഓ ആ മനസ്സിലായി മനസ്സിലായി അത് തേർഡ്സ് റോയിൽ ആണ്ന്ന് തോന്നുന്നു ആ അത് നോക്കി എടുത്താ മതി ഓക്കെ അപ്പം നിങ്ങട മറ്റെ രജിസ്റ്റർ ചെയ്യാൻ ആവുമ്പോ ഇപ്പം നിങ്ങട ആധാർ കാർഡ് ഒരു കോപ്പി വേണം ആറ് നമുക്ക് ഇരുപത് ദിവസം ആണ് സമയം അത് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ രൂപ വെച്ചിട്ട് ഫൈൻ ഉണ്ട് ആധാർ കാർഡും രണ്ട് ഫോട്ടോയും ആ ആ പിന്നെ പേയ്മെൻറ്റ് ഓൺലൈൻ ആണെന്ന് പറയുമ്പം അതിൻ്റെ ഇത് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നമ്മുടെ ജീമെയിലിലേക്ക് അയച്ച് ഇടണം

അപ്പം അവിടെ ഒര് മേഡം ഇരിക്ക് ഉണ്ടാവും ആ മേഡത്തെ കണ്ടാൽ മതി മേഡം മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങൾ ഒക്കെ റെഡി ആക്കി തരും